നമ്മുടെ ജീവിതത്തിലെ നിലവാരത്തെ ഗതാഗതവും യാത്ര സൗകര്യങ്ങളും വളരെ അധികം നല്ലൊരു രീതിയിൽ തന്നെ സ്വാധീനിച്ചിട്ടുണ്ട് അങ്ങനെ പറയുവാൻ കാരണമെന്തെന്നാൽ പണ്ടുകാലങ്ങളിൽ ഇല്ലാതിരുന്ന ഒരുപാട് പുതിയ പുതിയ യാത്രാ രീതികളാണ് ഇപ്പോഴുള്ളത് കൂടാതെ ഗതാഗതത്തിൻ്റെ കാര്യത്തിൽ തന്നെ എടുത്താൽ പണ്ടു കാലങ്ങളിൽ കാളവണ്ടി പോലുള്ള മറ്റ് ചെറിയ ചെറിയ ഗതാഗത രീതികളൊക്കെയാണ് പണ്ട് സീകരിച്ചിരുന്നത് എന്നുള്ളത് നമ്മൾക്ക് എന്നാൽ ഇന്നത്തെ കാലത്ത് ഒരു സൗകര്യം മീൻസ് യാത്രാ സൗകര്യങ്ങൾ വിമാനത്തിലൂടെ ആയാലും മറ്റ് ജില്ലകളിലേക്ക് പോകാൻ നമുക്ക് ഒരുപാട് ആൾ കരമാർഗവും ജലമാർഗവും അങ്ങനെ എല്ലാ രീതിയിലൂടെയും ഗതാഗതത്തിൻ്റെ കാര്യത്തിൽ ഒരുപാട് വലിയ മാറ്റങ്ങൾ തന്നെ ഇന്ന് സംഭവിച്ചിട്ടുണ്ട് വിമാനം പിന്നേ കപ്പലുകൾ ബോട്ടുകൾ തുടങ്ങി ട്രെയിനുകൾ മറ്റ് സംസ്ഥാനത്തേക്ക് പോകാൻ ഉള്ള നമുക്ക് ഒരുപാട് യാത്രാ സൗകര്യങ്ങൾ ഇന്ന് നമ്മുടെ ടെക്നോളജി വളരുന്നതോടൊപ്പം തന്നെ ഒരുപാട് മാറ്റങ്ങൾ ഇന്ന് സമൂഹത്തിൽ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് അത് ഒക്കെ തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ യാത്രാ സൗകര്യങ്ങൾ കുറച്ചും കൂടി വലുതാക്കാനും ആ ഒരു രീതി കുറച്ചും കൂടി വലുതാക്കാനും സാധിച്ചിട്ടുണ്ട്